അതായത് തീരുമാനമെടുക്കുന്നതില് കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ എങ്ങനെയാണ് പൗരന്മാരുടെ പ്രാതിനിധ്യവും പങ്കാളിത്തവും ഉറപ്പാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഇപ്പം തെരഞ്ഞെടുപ്പ് പൊതു കൂടിയാലോചനകള് അഭിഭാഷക ഗ്രൂപ്പുകള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കില് അവർക്ക് പാർട്ടി അതായത് നമുക്ക് നമ്മളെ പോലുള്ള സാധാരണക്കാരോടൊന്നും അവര് നമ്മളൊന്നും ചർച്ച ചെയ്യുകയൊന്നുമില്ല അവരവരുടേതായ ചർച്ചാ രീതിയില് ആ ചർച്ച കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് നമ്മള് അതായത് അവര് ചർചർച്ചയിലെന്താണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ നമ്മള് അതായത് നമ്മളെ പോലെ സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതാണിവരുടെ മെയ്നായിട്ടും പാർട്ടി കാര്യങ്ങളുടെ ഒക്കെ ലക്ഷ്യം പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അതായത് ഓരോ ഫണ്ട് അതായത് നമുക്ക് റോഡിൻ്റെ ഫണ്ട് അതായത് വീടിൻ്റെ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഫണ്ട് ശേഖരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവര് പാർട്ടിലൊക്കെയാണ് തീരുമാനിക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് ശേഖരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഒരു കോടി പാസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിലൊരു അൻപത് ലക്ഷം അവര് തന്നെയായിരിക്കും എടുക്കുക അത് നമുക്കറിയാവുന്ന കാര്യം അല്ലല്ലോ പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റെ വോട്ട് ഇലക്ട്രോണിക് വോട്ടിങ് വോട്ടർമാര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പാഴാണ് നമ്മുടെ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഒക്കെ ആവശ്യം അവർക്ക് കൂടുതലായിട്ട് വരുന്നത് അല്ലാത്ത കാര്യത്തിനെങ്ങനേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അവരുടേതായ ഓരോ കാര്യങ്ങളും നമ്മളില് അടിച്ചേൽപ്പിക്കുവാണ് ചെയ്യുന്നത്